ഇല്ല എനിക്ക് ഇതുവരെ ഒരു ഭാഷയും വിവർത്തനം ചെയ്യാൻ ഒരു സന്ദർഭം ഉണ്ടായിട്ടില്ല ഇതുവരെ അങ്ങനെ ഒരു ഇത് വന്നിട്ടില്ല അഥവാ ഇനി അങ്ങനെ ഒരു സന്ദർഭം വരും എന്നാണെങ്കിൽ നല്ല രീതിയിൽത്തന്നെ വിവർത്തനം ചെയ്യാൻ പറ്റും ആ ഭാഷ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം